ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പതിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപത്തി ഒന്ന്